ഹലോ ഇത് സെഞ്ച്വറി ഫാഷൻ സിറ്റി അല്ലേ ആ എനിക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾ ഉണ്ട് രണ്ട് മക്കൾ ഉണ്ട് അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ട് ആയിരുന്നു ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ ഒരു അവർ അവർക്ക് ഒരു ഏകദേശം അവർ ഇവിടെ ഇല്ല അവർ ഒന്ന് ഗൾഫ് അപ്പം അവർക്ക് അവർ ഓണം കഴിഞ്ഞിട്ടേ വരൂള്ളൂ അപ്പം ഓണത്തിന് മുന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഒരു ആറ് മെമ്പേഴ്സിന് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അപ്പം അവരുടെയും കൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ ഇന്ന് ഞാൻ ഉണ്ടാവില്ല നാളത്തേക്ക് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് കാര്യങ്ങൾ ഒക്കെ ഇപ്പം ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടല്ലേ ഓക്കെ ആ എനിക്ക് ഇപ്പം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാന്റ് ഷർട്ട് എനിക്ക് എന്തായാലും വേണം ഒരു രണ്ട് ജോഡി പാന്റ് ഷർട്ട് നോർമൽ പാന്റും നോർമൽ ഷർട്ടും പിന്നെ വൈഫിന് ഒരു സാരിയും ഒരു ചുരിദാറും ആ പിന്നെ എൻ്റെ മക്കൾ ഒരാൾ പെണ്ണും ഒരാൾ ആണും ആണ് അപ്പം അവർ ഒരാൾ ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സ് ഉണ്ടാവും ഒരാൾക്ക് ആ ആൺകുട്ടിക്ക് ഒരാൾക്ക് പതിനാറ് പതിനഞ്ച് വയസ്സ് ഉണ്ടാവും ഏകദേശം വലിയ എന്താണ് പറയുക ഹൈറ്റ് വെയ്റ്റ് ഒന്നും ഇല്ല ഒരാൾ ഒരാൾക്ക് അത്യാവശ്യം ഹൈറ്റ് വെയ്റ്റ് ഉണ്ട് ആൺകുട്ടിക്ക് ഹൈറ്റ് വെയ്റ്റ് കാര്യങ്ങളും ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഉള്ള ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണ് വേണ്ടത് ഇപ്പം അഥവാ നമുക്ക് അത് പറ്റിയില്ലെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവും അല്ലേ ഇവർക്ക് രണ്ട് പേർക്കും രണ്ട് ജോഡി വെച്ചാണ് വേണ്ടത് ഫിഫ്റ്റി പെർസെൻറ്റേജോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നാളെ വന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ലേ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ നാളെ വരാം എന്നാൽ ഓക്കെ